ഹലോ സാറെ ഞാന് ചങ്ങനാശ്ശേരീന്നാണ് വിളിക്കുന്നത് എനിക്കീ പി എം കെ വൈ കെ വി വൈയുടെ സര്ട്ടിഫിക്കറ്റ് വേണമായിരുന്നു അത് ഞാനിപ്പം എന്റെ ബയോഡേറ്റേൽ അതൂടെ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അതിനൊരു മുന്ഗണന കിട്ടുവായിരുന്നു അതുകൊണ്ടായിരുന്നു ഞാനത് ചോദിച്ചത് അതിന് ഞാനപേക്ഷിക്കാനായിട്ട് ഇതിന്റെ സര്ട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാന് ഞാനെന്താണ് ചെയ്യേണ്ടത് അപ്പം എനിക്ക് ഇപ്പം അപേക്ഷിക്കുവാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരേക്കാട്ടിലും ഒരുപടി മുന്നോട്ട് മുന്നോട്ട് അതിനുള്ള ഇത് സാദ്ധ്യത ഉണ്ടായിരുന്നു ജോലി കിട്ടാനായിട്ട് ഓക്കേ ഓക്കേ ആ ഓക്കേ ഞാനിപ്പം ഇതിനു വേണ്ടി ഞാൻ ഗൂഗിളില് സേര്ച്ച് ചെയ്തിട്ട് ഞാൻ അതിന്റെ ഓണ്ലൈനില് അപേക്ഷ എടുക്കണോ അപേക്ഷ ഫോമെടുത്തിട്ട് ഞാനത് പൂരിപ്പിച്ചിട്ട് സബ്മിറ്റ് ചെയ്യണം അല്ലേ ഓകെ എന്റെ പേരും വീട്ടുപേരും ഞാനെ പഠിച്ചതും അതെല്ലാം ഞാൻ അതിന്റകത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സാറേ ഓകെ ഞാനപ്പം ഇതിനു വേണ്ടി കെ എം വൈ സര്ട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു ഞാനെഴുതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കിട്ടിക്കഴിയുമ്പോൾ സാറ് സബ്മിറ്റഡെന്നായിട്ടുണ്ട് അപ്പോൾ സാറെ ഇതൊന്നു ഒന്ന് പരിശോധിക്കാമോ ഞാനെഴുതിയേക്കുന്നത് കറക്റ്റ് ആണോ അത് അപേക്ഷ ഫെയിലായി പോകാതിരിക്കാനയിട്ടതൊന്ന് നോക്കീട്ട് ഓകെ ആണെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു തരൂ മെസ്സേജ് അയക്കുവോ അല്ലെങ്കില് ഓകെ എന്ന് ടിക്ക് ഇടുവോ ചെയ്യുവോ ഓകെ സാറേ താങ്ക് യൂ താങ്ക് യൂ